ഞാൻ ഇപ്പോൾ കൂടുതലും അതായത് തൈകളൊക്കെ എനിക്ക് വലിയ സ്ഥലമൊന്നും ഇല്ല കുറച്ച് സ്ഥലമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് വർഷത്തിൽ ഒരിക്കൽ ഒക്കെ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിനൊക്കെ ഇവിടെ അങ്കൻവാടികളിൽ ഒക്കെ ചെടിയൊക്കെ കൊടുക്കും അവിടുന്ന് മേടിച്ചുകൊണ്ട് വരും എന്നിട്ടാണ് നടാറ് അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൂൺ ഒക്കെ ആണല്ലോ അപ്പം മഴക്കാലത്ത് ഒക്കെ നടുന്നതാണ് ചെടികൾ കൂടുതലും മഴക്കാലത്ത് നടുന്നതാണ് നല്ലത് വേനൽകാലത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നട്ടാൽ അങ്ങനെ പിടിക്കാൻ സാധ്യതയില്ല പക്ഷേ മഴക്കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നഞ്ഞച്ചു കൊടുക്കേണ്ട അത് താനെ പിടിച്ചോളും അങ്ങനെ ഒക്കെ ഒരു ഉപകാരമുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു മണ്ണിൽ നടുക കുറച്ച് ചകിരിച്ചോറ് ഇത്തിരി ചാണകം അങ്ങനെ ഉള്ളതൊക്കെ ഇതാക്കിയിട്ട് നല്ലവണ്ണം നല്ല കുഴി അതായത് അതിൻ്റെ വേര് വേരിറങ്ങി ഇതാകാനുള്ള രീതിയിലുള്ള കുഴികൾ ഒക്കെ ആക്കിയിട്ട് വേണം നടാൻ അപ്പം അങ്ങനെ ശ്രദ്ധിച്ച് നടുക ഞാൻ കൂടുതലും പിന്നെ അങ്ങനെ എവിടുന്നെങ്കിലും ചെടിയൊക്കെ കിട്ടുമ്പോൾ അങ്ങനെയൊക്കെയാണ് കൊണ്ട് നടാറ് പിന്നെ മഴക്കാലത്ത് നടുന്നതാണ് ഏറ്റവും നല്ലത് ഏറ്റവും അനുയോജ്യവും പിന്നെ വേനൽകാലത്ത് നടാം പക്ഷേ നമ്മൾ അതിനനുസരിച്ച് നോക്കണം ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ ഒവ് വെയിൽ വേണം പക്ഷെ ഓവർ വെയിൽ ഉള്ള സ്ഥലത്ത് നടാൻ പാടില്ല അതായത് ഓവർ വെയിലും ഉണ്ടാവാൻ പാടില്ല പക്ഷേ വെയിൽ വേണം താനും അങ്ങനെ